പാലക്കാട് പോലുള്ള ഒരു ജില്ലയിലെ ഈ മൃഗ പരിപാലനത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ട് അതുകൊണ്ടു തന്നെ പാലക്കാട് പ്രദേശത്തില് അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലെ ഗ്രാമ പ്രദേശങ്ങിലെല്ലാവിടെയും ഒരു വെറ്റിനറി ഹോസ്പിറ്റല് അല്ലെങ്കില് മൃഗ പരിപാലനത്തിനുള്ള ഒരു ഹോസ്പിറ്റല് കാണാൻ നമുക്ക് കഴിയും ഇവിടെയുള്ള വെറ്റ്നറി ഡോക്ടറിന്റെ സഹായം കൊണ്ട് ഇന്ന് നമ്മൾക്ക് നാട്ടിലെ മൃഗങ്ങൾക്ക് വരുന്ന പല രോഗങ്ങൾക്കുള്ള കുത്തിവെയ്പ്പും അതുപോലെതന്നെ പല രോഗങ്ങളും കുറയ്ക്കുന്നതിന് ഈ ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ വെറ്റിനറി ഡോക്ടർമാരുടെ പ്രവർത്തനവും വലിയ ഒരു പങ്കാണ് വഹിക്കുന്നത് ഈ കുളമ്പു രോഗത്തിൻറെ കുത്തി വെയ്പ്പ് കൃത്യമായിട്ട് അറിയിക്കുന്നയിലൂടെ ഈ കുളമ്പ് രോഗം വരാതിരിക്കാനുള്ള കുത്തിവെയ്പ്പ് എടുക്കുന്നയിലൂടേയും അതുപോല തന്നെ പല റാബിക്സ് വാക്സിൻ പോലുള്ള വാക്സിനേഷൻറെ കാര്യങ്ങളെത്തിക്കുന്നതിലും ഈ കുത്തിവെയ്പ്പ് നടത്തുന്നതിലും ഈ പ്രാദേശീക സ്ഥലത്തെ അല്ലെങ്കിൽ ഈ പ്രാദേശിക പ്രദേശത്തെ ഹോസ്പിറ്റലുകൾക്കും ഡോക്ടർമാർക്കും വലിയ ഒരു പ്രാധാന്യം തന്നെയുണ്ട് ഈ വാക്സിനേഷൻ കൃത്യമായെടുക്കുന്നതിലൂടെ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകർന്ന റാബിക്സ് വാക്സിൻ അല്ലെങ്കിൽ റാബിക്സ് വൈറസ്സിനെ ഒരു പരിധിവരെ നമ്മക്ക് തടഞ്ഞു നിർത്താൻ പറ്റും ഈ മനുഷ്യരിലേക്കു പകരുന്ന കൂടുതൽ രോഗങ്ങളും മൃഗങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കാറ് മൃഗങ്ങളിൽ നിന്നും പല വൈറസുകളും ബാക്ടീരിയകളും ഇന്ന് നമ്മുടെ ശരീരത്തിലോട്ട് കടന്നു കളഞ്ഞാൽ അല്ലെങ്കിൽ കടന്നു ചെന്നാൽ മാരകമായിട്ടുള്ള രോഗങ്ങളാണ് ഇന്ന് കാണാൻ പറ്റുക